നിലവിൽ ഇപ്പം ഞങ്ങൾക്ക് കന്നുകാലികൾ ഒന്നും ഇല്ല ഉണ്ടായിരുന്ന ടൈമിൽ എങ്ങനെയെന്ന് വെച്ചാൽ രാവിലെ അഴിച്ച് വിടും അഴിച്ച് വിടുമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്തൊരു പാറ ഉണ്ട് പാറയിൽ എന്താ കുറെ പുല്ലുകളും അങ്ങനത്തെ കുറെ അവർ അവർക്ക് കഴിക്കാൻ പറ്റിയ കുറെ സാധനങ്ങൾ ഒക്കെ ഉണ്ട് അപ്പം അവിടെ കൊണ്ട് പോയി കെട്ടിയിടും കെട്ടിയിട്ടിട്ട് ഓൾമോസ്റ്റൊരു ഉച്ചയക്കെ ആകുമ്പോൾ ഒന്നൂടെ പോയിട്ട് അവരെ മാറ്റി കെട്ടും അതായത് രാവിലെ കെട്ടിയ എടുത്തൂന്ന് അവർ എല്ലാം കഴിച്ച് തീർത്തിട്ടുണ്ടായിരിക്കും അപ്പം ഉച്ചയാവുമ്പം മാറ്റി കെട്ടും പിന്നെ വൈകിട്ട് ആവുമ്പോൾ അവരെ അഴിച്ചോണ്ട് വീണ്ടും വീട്ടിലേക്ക് വരും എന്നിട്ട് എന്താ അവർക്കുള്ള അതായത് ഫുഡ് ഫുഡ് മീൻസ് കാടീന്ന് പറയും കാടി കൊടുക്കും വെള്ളം കൊടുക്കും അങ്ങനത്തെ കുറെ ഫുഡ്സൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യും പിന്നെന്താണ് രാവിലെ വീണ്ടും എഴുന്നേറ്റ് പാൽ ഉണ്ടേൽ പാല് കറക്കും എന്നിട്ട് മുമ്പേ പറഞ്ഞത് പോലെ തന്നെ അഴിച്ചിട്ട് അഴിച്ച് വിടും പാറയിൽ കൊണ്ട് പോയി കെട്ടും ഇത് തന്നെ റിപ്പീറ്റാണ് ചെയ്യുന്നത്